ഹലോ ഹലോ അതെ അതെ എന്തും മാത്രം സ്ഥലമാണ് റ്റു സെന്റ് സലത്തിനാണ് വിലക്കൂടുതലാണല്ലോ ആ റോഡ് സൈഡിലാണെങ്കിൽ ഒരു റോഡ് സൈഡിലാണ് ഒരു ലക്ഷം ഇച്ചരെ ഉള്ളിലോട്ടാണ് അൻപതിനായിരം വൽ വലിയ മെയിന് റോഡാണെങ്കിൽ രണ്ടും രണ്ടര ലക്ഷം രൂപയല്ലെ വില ഇതിപ്പം മെയിന് റോഡല്ല ചെറിയ മെയിന് റൊ ചെറിയ റോഡാണ് സ്ഥലം മാത്രേയുള്ളൂ പെരയില്ല

റേറ്റ് കുറഞ്ഞത് ഇരുപത് സെന്റ് ഇരുപത് സെന്റ്റായിട്ടാണ് കിടക്കുന്നത് പിന്നുള്ളത് പ്ലോട്ടായിട്ട് കൊടുക്കും അതാവുമ്പം ഇത്തിരി വിലക്കുറയും അതിന്റെ റേറ്റ് നാൽപ്പതിനായിരം രൂപയ്ക്ക് തരാം മെയിന് റോഡല്ല പഞ്ചായത്ത് റോഡാണ് ഏ എന്തോ ആ ബസ് റൂട്ടില്ല ബസ് റൂട്ടില്ല പഞ്ചായത്ത് റോഡാണ്

ഇരുപത്തയ്യായിരം ഉള്ളതോ സെന്റ് അത് സ്ഥലം സ്ഥലം അന്നേരം കൂടുതലാണ് അൻപത് സെന്റ് സ്ഥലമൊക്കെ ആയിട്ടാണ് അത് പ്ലോട്ടായിട്ട് കൊടുക്കുകേലാ

ആ ഇന്നാൾ വന്ന നാളെ പോര് നാളെ എപ്പം വന്നാലും കുഴപ്പമില്ല സാ നിങ്ങൾ വിളിച്ചിട്ട് വന്നാൽ മതി ആ ഞങ്ങളുടെ കമ്മീഷന് നാൽപ്പതിനാണ് ആ ഇത് നാൽപ്പതിനായിരം അല്ലേ പറഞ്ഞത് ഞങ്ങൾക്ക് നാൽപ്പതിനായിരത്തിനൊരു ഒരു നാൽപ്പതിനായിരം ആവുമ്പോള് ആയിരം രൂപ വെച്ച് അതിയാ ഒ ഒരു ലക്ഷത്തിൽ കുറയത്തില്ല അത് മെയിന് റോഡാ

ആ അത് നാളെ വന്നാൽ കാണാം നാളെ വന്നാൽ കാണാം ആ ആ രണ്ട് ആ രണ്ടും ഒരിടത്താണ് വേറെ വൃക്ഷങ്ങളൊന്നുമില്ല മ മരുഭൂമി പോലെ കിടക്കുന്നതാണ് ആ അടുത്ത് വീട് ഉണ്ട് അടുത്ത് ആ അടുത്ത് വീടുകളൊക്കെ ഉണ്ട് ആ ആ ഓക്കെ ശരി എന്നാൽ ആ രാവിലെ പത്ത് മണി ആവുമ്പോൾ പോര് ഓക്കെ